എനിക്ക് രസകരമായിട്ടോ ശ്രദ്ധേയമായോ തോന്നിയ മലയാള ഭാഷയിലെ അതായത് രസകരവും അസാധാരണവുമായ ചില വാക്കുകളും പ്രയോഗങ്ങളും ഏതൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പല നോവലുകൾ കാര്യങ്ങളൊക്കെ അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ബഷീറിൻ്റെ ബാലകാല സഖി എൻ്റെ ഉപ്പാപ്പക്ക് ഒരു ആന ഉണ്ടായിരുന്ന് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് മതിലുകൾ അങ്ങനെയുള്ള ഇതിലൊക്കെ രസകരമായിട്ടുള്ള ഓരോ വേർഡ്സും ഉണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീറിൻ്റെ ഒരു മടിയില്ലാണ്ട് എല്ലാം എഴുതി ചേർക്കുന്ന ഒരു നോവൽ കാര്യങ്ങൾ ഒക്കെ ആയിരിക്കും അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസകരമായിട്ടുള്ള ഓരോ വാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാ അതായത് മുസ്ലിംസിൻ്റെ അതായത് അതായത് മുസ്ലിംസിൻ്റെ സ്ലാങ് ചേർന്ന അതായത് പലവിധ പിന്നെ വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ നമുക്ക് അതായത് ഭയങ്കര രസമാണ് രസമായിട്ട് തോന്നുന്ന രസ മലയാളത്തിൽ അതായത് മലയാള ഭാഷയിൽ രസകരമായ വാക്കുകൾ ഒക്കെയാണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ട് നമുക്ക് ഓരോ വാക്കായിട്ട് നമുക്ക് പറയാം ഒരുപാട് വാക്കുകളുണ്ട് അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിച്ച് ഇരിക്കാനും അതായത് നമ്മൾ ഇപ്പോൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാണെങ്കിൽ മനസ്സിലാണെങ്കിൽ മനസ്സിലെ ചിരി നമുക്ക് പുറത്തേക്ക് നമുക്ക് ചിരിക്കാനും എല്ലാം കഴിയും